അതായത് ഞാനെൻ്റെ ക്യാമറ ഉപയോഗിച്ചുള്ള റീലുകളും ചിത്രങ്ങളും എടുക്കാറുണ്ട് ചിത്രങ്ങൾ പകർത്തുന്നതിൽ നിന്നും ഇതു വളരെ വ്യത്യസ്തമാണ് കാരണം ചിത്രങ്ങൾ സാധാരണ രീതിയിൽ പകർത്തുമ്പോളതു നമ്മൾ വളരെയധികം ആംഗിളും എന്താ അതായത് പ്രഫഷൻ്റെ രീതിയിൽ വേണം ചെയ്യാൻ പക്ഷേ റീൽസെടുക്കുമ്പോൾ നമുക്ക് അധികം കഷ്ടപ്പാട് വരുന്നില്ല കാരണം റീൽസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അതായതു നമ്മുടെ ക്രീയേറ്റിവിറ്റി പുറത്തെടുക്കാനുള്ളൊരു വലിയ മാർഗ്ഗമാണ് റീൽസ് പക്ഷേ പ്രൊഫെഷണൽ ഫോട്ടോഗ്രഫി ഫീൽഡിലേക്കു വരുമ്പോൾ നമുക്കതൊരു എന്താണ് പഠിച്ചിട്ട് ചെയ്യേണ്ടൊരു വലിയൊരു കാര്യം പോലെയാണ് തോന്നുന്നത് അതായത് ഈ പ്രഫഷണൽ ഫോട്ടോഗ്രഫി വെച്ചു നോക്കുമ്പോൾ റീൽസ് ഭയങ്കരെളുപ്പമാണ് അതുമല്ല ഈ നമ്മളെടുക്കുന്ന ഈ പ്രഫഷണൽ രീതിയിലെടുക്കുന്ന ഫോട്ടോസീന്ന് കിട്ടുന്നേക്കാട്ടിലും ഒരെട്ടോ പത്തോ ഇരട്ടി റീച്ച് നമുക്ക് റീൽസിടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു അതുമല്ല പ്രഫഷണൽ ഫോട്ടോസിട്ട് പൈസ നേടുന്നതിനേക്കാൾ വളരെയേറെ എറു എളുപ്പമാണ് റീൽസ് രൂപത്തിലൂടെ റീൽസ് നമ്മൾ പോസ്റ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് പണം ലഭിക്കുന്നത് വളരെ എളുപ്പമാണ്